ആ അതെ അതെ ഈ സാങ്കേതികവിദ്യയെക്കുറിച്ച് പഠിക്കുന്നതും അതിൻ്റെ പ്രയോഗവും എല്ലാവർക്കും പഠിക്കാനുള്ള അടിസ്ഥാന വിഷയമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്ക്ന്നൊണ്ട് കാരണം ഈ പുതിയ കാലഘട്ടത്തിലേ ഏ യ് പുതിയ കാലഘട്ടത്തിലെ സാങ്കേതികവിദ്യ സാങ്കേതികവിദ്യയുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ ഈ സാങ്കേതികവിദ്യയെപ്പറ്റി എല്ലാവരും പഠിച്ച് അല്ലെ അറിഞ്ഞിരിക്കുമ്പോൾത്തേന് അത് എല്ലാവർക്കും വളരെ നല്ല രീതിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സാങ്കേതിക നമ്മൾ വിദ്യ സാങ്കേതികവിദ്യ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഘലയാണ് സാങ്കേതികവിദ്യയുടെ മേഘല

അവിടെ നമ്മൾ കൂടുതലായിട്ട് എന്തു ചെയ്താലും അത് കുറഞ്ഞു പോവത്തില്ല കാരണം അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പടിക്കുമ്പോളും അറിയുമ്പോളും നമുക്ക് പല പല അവസരങ്ങൾ ഭാവിയിലുണ്ടാകുവാനൊക്കെ ഇടയാകും ഇപ്പം ട്രഡീഷ്ണൽ ആയിട്ടുള്ള പല ജോലികളുമുണ്ട് ഇപ്പം അതായത് ചിലവർ പറയുന്നു എഞ്ചിനീയർ ആവണം ഡോക്ട്ര് ആവണം അങ്ങനെത്തെ കുറേ കാര്യങ്ങളുണ്ട് എന്നാൽ അതൊന്നും ശരി അതൊന്നും അതിലുവൊക്കെ ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഈ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ സാങ്കേതിക ഏ ഐയേപ്പറ്റി പഠിക്കുകയും ഏ അയ്ടെ മേഘലയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നവർ പുതിയ അതായത് ന്യൂ ജനറേഷൻൽ ഒരു ട്രെൻറ്റ് എന്ന് പറയുന്നത് ഈ ഈ ട്രെൻറ്റിലൂടെ നമ്മൾ പോകുമ്പൾത്തേന് അതായത് പുതിയ ഇതിനേപ്പറ്റി പഠിച്ച് പുതിയ ഇതിലേട്ട് പറ്റി പോമ്പൾത്തേന് എല്ലാവരും അത് പഠിക്കുമ്പോൾത്തേന് നമുക്ക് എല്ലാവരുമൊരു മോഡേൺ രീതിയിലോട്ട് മോഡേൺ ചിന്താഗതിയിലോട്ട് മാറുവനായിട്ട് ഇടയായിത്തീരും അത് ഒരു അടിസ്ഥാന വിഷയം അത് കുഞ്ഞുനാളേ മുതലേ ഇതിനെപ്പറ്റി അതായത് ഒരു പ്രായം ഒരു ഫോട്ടീൻ റ്റു സിക്സ്റ്റീൻ ഇയേഴ്സിലുള്ള ആളുകൾ ആളുകളെ അല്ല കുട്ടികളെ ഇതിനെപ്പറ്റി കൂടുതൽ അവയർ ആക്കുമ്പോളും അല്ലേ ഈ സാങ്കേതികവിദ്യ സാങ്കേതികവിദ്യയെപ്പറ്റി പഠിപ്പിക്കുന്നതും അതിനെപ്പറ്റി ഒരു അവയർ ആക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാവിയിലവർക്ക് വർക്ക് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നതാണ് പിന്നെ ഈ സാങ്കേതികവിദ്യേ വിദ്യ ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ സാങ്കേതികവിദ്യ പ്രയോഗിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി അത് ഇപ്പം ഞാൻ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പല ഏ അയ് യെ പറ്റി അറിയാനായിട്ടൊക്കെ ഇഷ്ടമാണ് ഇൻട്രസ്റ്റ് ആണ് പല ഏ ഐയെപ്പറ്റി അറിയുകയും ചെയ്യാം അതിൻ്റെ അകത്ത് ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിങ്ങിന് വേണ്ടി എ ഐ യൂസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ പല കാര്യത്തിൽ ഏ ഐ യൂസ്സ് ചെയ്യുന്നുണ്ട് എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുമ്പം നമുക്ക് ഇപ്പം ഒരു ഒബ്ജക്റ്റിനെ എറേയ്സ്സ് ചെയ്ത് കളയണം അത് ആ ഒബ്ജെക്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഉണ്ട് എന്ന് അറിയാത്ത രീതിയിൽ നമുക്കതിനേ എറൈസ്സ് ചെയ്യാനൊക്കെപ്പറ്റും അതൊക്കെ എല്ലാരും പടിക്കുമ്പോൾത്തെ അത് നല്ലൊരു കാര്യമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ഷേ ചിലരെ സമ്പന്ധിച്ചിടത്തോളം ചിലരാണെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവർ അറിയാനായിട്ട് ആഗ്രഹിക്കില്ല എല്ലാ സീക്രട്ട് ആയിട്ട് വെക്കണം അങ്ങനെ ഉള്ള ആളുകളും ഉണ്ട് ഇതിപ്പം ചില ഏ ഐയെ പറ്റി അറിഞ്ഞാൽ അവർ അവരെ കുറച്ചുകൂടെ മുന്നേറുന്ന ആഗ്രഹിച്ച് അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാരുമുണ്ട് പക്ഷേ എന്നെ സമ്പന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എനിക്ക് അറിയാവുന്ന ഏ ഐ എല്ലാം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യും അത് വളരെ നല്ല ഒരു കാര്യമാണ് എനിക്ക് ഏ ഐയെ പറ്റി അഡോബോ ഫയർഫ്ലൈ അങ്ങനെത്തെ ഏ ഐ എനിക്ക് ഇഷ്ടമാണ് അത് നല്ലതായിട്ട് അതിൻറ്റകത്തെല്ലാം ചെയ്യാൻ പറ്റും അതുപോലെത്തന്നെ ഇപ്പം ചാറ്റ്ജീപ്പീറ്റി പോലുള്ള ഏ ഐ ജിമിനൈ അങ്ങനെത്തെ ഏ ഐ ഇതൊക്കെയാണെങ്കിൽ വളരെ നല്ലൊരു ഏ അയ്കളാണ് അതിൻറ്റകത്ത് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് കൊടുക്കുന്ന പ്രോംൻറ്റിനനുസരിച്ച് അവർ നമുക്ക് ഔട്ട്പ്പുട്ട് തരികയും ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഏ അയ്കളാണ് ഇത് നല്ലൊരു ജോലിസാധ്യത കൂടിയുള്ളൊരു മേഘലയാണ് ഈ ഏ ഐടെ മേഘല അത് അങ്ങനെത്തെ പല നമ്മൾ എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിൻറ്റകത്തിപ്പം വീഡ്യോക്കകത്ത് വരെ നമുക്ക് ഏ ഐ വെച്ച് എക്സ്പ്പാൻറ്റ് ചെയ്യാം അങ്ങനൊക്കെ കുറേ കാര്യങ്ങൾ ഏ അയ് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഏ ഐ വെച്ച് കുറെ ആളുകളെ ഇതുവരെ ജീവിച്ചിട്ടിരുന്ന ഈ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളെ ഏ ഐ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഇത് വളരെ നെഗറ്റീവ് ആയിട്ടും ചെലവരെ ബാധിക്കുന്നു ബാധിക്കുകയും ചെയ്യും നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നവരുമുണ്ട് പോസിറ്റീവ് ആയിട്ട് ബാധിക്കുന്നവരും ഇത് അ പഠിച്ച് പറഞ്ഞ് ഇരിക്കുമ്പോൾത്തേന് ഇത് നല്ല എഫക്റ്റീവ് ആണ് അവർക്ക് ഓരോ കാര്യങ്ങൾ പിന്നീട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും ഓക്കെ